ജീവിതത്തില് കലയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാല് ശെരിക്കും ഞാൻ പറയും മനുഷ്യൻ്റെ ജീവൻ്റെ ഒരു തൊണ്ണൂറു ശതമാനം കലയുമായിട്ട് അനുബന്ധിച്ച് പോകുന്നെന്ന് തന്നെ പറയാം കാരണം ഏതെങ്കിലുവൊക്കെ തരത്തിലുള്ള കലകള് ഓരോ മനുഷ്യർക്കും ഉണ്ടാകും അവർക്ക് അതിനോട് അതിനോട് ഇടപഴകി ആ ഒരു കലയില് അവരുടെ ആ കഴിവില് ജീവിക്കുമ്പത്തേക്കും അവർക്ക് ഒരുപാട് മനസ്സിന് ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു രീതികളുണ്ട് ഇപ്പോൾ പാട്ടുപാടാൻ അറിയാവുന്നവർക്ക് പാട്ടുപാടുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം എന്താ വേറെ ഒരു വേറെ ഒന്ന് തന്ന വേറെയാണ് പിന്നെ പാട്ടു കേൾക്കുമ്പം അത് ഒരു സന്തോഷം ആ ഒരു സന്തോഷമെന്നൊക്കെപ്പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോലും നമുക്ക് ഒരു കലകള് ചില നല്ല സിം നല്ല നല്ല സിനിമകള് കാണുമ്പഴ് നല്ല നല്ല ഡാൻസുകള് അല്ലെങ്കില് നല്ല നല്ല ടോക്കുകൾ ഓരോത്തരുടെ കേൾക്കുമ്പോഴ് ഇതൊക്കെ തന്നെ നമുക്ക് ഓരോ മനുഷ്യർക്കും ഓരോ തരത്തിലുള്ള കലകള് കാണും ദൈവം കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളില് പോകുമ്പം നമ്മള് ഈ

അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും നമ്മള് യാത്ര പോകുമ്പഴാണേലും പല തരത്തിലുള്ള കലകള് ഓരോത്തരും ആസ്വദിക്കുന്ന രീതികള് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നന്നായിട്ട് സന്തോഷം തോന്നാറ് എനിക്ക് വയ്യ